ഗ്രാമീണം അല്ലെങ്കിൽ നഗര അദ്ധ്യാപന രീതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇിന്ദിരാഗാന്ധിയാണ് ആദ്യം തന്നെ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കിയത് അതിന് ശേഷം ചെറിയ മാറ്റങ്ങളിലൂടെ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈ വിദ്യാഭ്യാസ നയം ഒന്നും കൂടെ രൂപീകരിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നരസിംഹ റാവു ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അതിൽ അതിനൊക്കെ ശേഷം ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ ആണ് മുപ്പത്തി നാല് വർഷങ്ങൾക്ക് ഇപ്പുറം സമഗ്ര പരിഷ്കാരത്തിലാണ് ആദ്യമൊക്കെ ഈ വിദ്യാഭ്യാസ നയം പറയുന്നതിൽ ആറു മുതൽ പന്ത്രണ്ട് പതിനാല് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് സൗജന്യപ്പെടണം ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസം നയം മൂന്ന് മുതൽ പതിനെട്ട് വയസ്സിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്നാണ് ഗ്രാമീണ മേഖലയിലാണെങ്കിൽ

അടി അടിച്ചു പഠിപ്പിക്കുക എന്ന രീതി മാറി അടിച്ച് പഠിപ്പിക്കുന്ന രീതിയാണ് ഗ്രാമീണ രീതിയിൽ കൂടുതൽ ഫോഴസ്ഫുള്ളായിട്ട് ഇന്നത് ഇന്ന ദിവസത്തിൽ അത് പഠിക്കണം അത് അത്രയും വലിയ സ്ട്രിക്ട് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ആ ആ നഗര അധ്യാപന രീതികളെക്കുറിച്ച് പറയാനുള്ളത്